ഹലോ അതെ അതെ അതെ അതെ

യാതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല നിങ്ങളുടെ കുട്ടിയുടെ ഭാവിയുടെ ആണ് ബാധിക്കുന്നത് അതിനാൽ ടൂറ് പോയിക്കഴിഞ്ഞാൽ അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മാർക്ക് കുറയും കൊച്ചിന് അത് നിങ്ങൾക്ക് മനസിലാക്കാനുള്ള കാര്യമേ ഉള്ളൂ യാതൊരു കാരണവശാലും അത് അംഗീകരിക്കുന്നതല്ല എന്ന കാര്യം ഓർമിപ്പിക്കുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ പ്രാവശ്യത്തെ മാർക്ക് എന്തോ ഉണ്ടായിരുന്നു എല്ലാ സബ്ജക്റ്റിനും ഉണ്ടോ ടൂറ് പോയാൽ പഠിക്കാൻ ബുദ്ധിമുട്ട് അല്ലേ പഠിക്കുകയില്ലല്ലോ എന്നാണ് പോവുന്നത് എത്ര എത്ര ദിവസം ഫൈവ് ഡെയ്സ് എന്തായാലും പറ്റില്ല ഫോർ ഡെയ്സ് ഫോർ ഡെയ്സിലേക്ക് ആക്കുക അടുത്ത് തന്നെ ആ അപ്പോൾ വെട്ടിക്കുറച്ച് വീണ്ടും തിരിച്ച് സമയത്ത് തന്നെ തിരിച്ച് എത്തുക അടുത്ത പരീക്ഷ ആയതുകൊണ്ടാണ് ഉയർന്ന പരീക്ഷയാണ് അതുകൊണ്ട് യാതൊരു കാരണവശാലും അംഗീകരിക്കുന്നതല്ല അതിനു വേണ്ടി സഹകരിക്കുക പത്താം ക്ലാസല്ലേ അത് അതുകൊണ്ട്

പറ്റുമോ ഇനി തിരിച്ച് ടീച്ചറോട് ചോദിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ബാക്കി പിള്ളേർ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ അവരുടെ ഇതും കൂടെ നോക്കിയതിനു ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം അതിന് അതിന് ലീവിൽ ലീവ് ലെറ്റർ എഴുതി ടീച്ചറുടെ കൊടുക്കുക ടീച്ചറിൻ്റെ പേര് മേരി ആ അപ്പം ഞാൻ പറഞ്ഞു കൊള്ളാം അതിനു വേണ്ടത് ചെയ്യേണ്ടത് ലീവ് ലെറ്ററ് നാളെ തന്നെ എഴുതി കൊടുക്കുക